കരകൗശല മേഖലയിൽ ധാർമ്മികത എന്ന് പറഞ്ഞാൽ കരകൗശല മേഖലയിൽ നമ്മൾ ഉല്പാദിപ്പിക്കുന്ന കേരളത്തിലെ ആൾക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ അത് അവരുടെ അവർക്ക് എത്രത്തോളമാണോ അതിന് പിന്നെ അതിന് എത്രത്തോളം ആണ് അവർക്കതിനുള്ള ചിലവ് വരുന്നത് അതിനനുസരിച്ച രീതിയിൽ അവർക്കതിന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം നമ്മൾ അതിനെ വളർത്തിക്കൊണ്ടു വരുന്നത് അതായത് ഒരു ധാർമികത അവിടെ വേണമെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ചിലവ് കൂടുതലും എന്നാൽ അവർക്ക് കിട്ടുന്ന ഇത് തുച്ഛം ആണെങ്കിൽ പിന്നെ അതിനകത്തൊരു ധാർമികതയില്ല അപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കഴിവ് വേറൊരു രീതിയിലേക്ക് പ്രകടിപ്പിക്കാൻ അത് പെയിൻറ്റിങ് ആയിക്കോട്ടെ ഓരോരോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് ആയിക്കോട്ടെ എന്തായാലും അതിൻറ്റേതായ രീതിയിൽ കുറെ ചിലവുകൾ വരുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് രീതിയിലായിരിക്കണം അത് വിൽക്കുന്ന സമയത്തും അയാൾക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അതിൻറ്റെ പൈസ തിരിച്ചു കിട്ടുന്നത് എന്നാലെ അതിനകത്തൊരു ധാർമികതയുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം